ആ ഹലോ മാഡം ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ട്രാവലർ ആണേ അപ്പം ഞാൻ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ കേരളത്തിലെ ട്രഡീഷണൽ ഫുഡ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം എന്തൊക്കെ തരം ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അവിടെ എൻ്റെ എ സിക്സ്റ്റി ത്രീ ബെഹ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും വെജ് ആണ് പിന്നെ ലഞ്ചിൽ നമുക്ക് നോൺ വെജും കുഴപ്പം ഇല്ല ആ പിന്നെ ഡിന്നറും ആ ഡിന്നർ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി കെല്ലോഗ്സ് ഉണ്ടാവുമോ മാം

ആ ഓക്കെ ആ അപ്പം ഇഡലി സാമ്പാർ അതും പിന്ന കെല്ലോഗ്സ് ആൻഡ് പാലും

കോഫി വേണ്ട കോഫിയും ടീയും വേണ്ട ഇപ്പം വേണ്ട ആ ലഞ്ച് മെനുവോ നോർമൽ മീൽസ് ആണ് നമുക്ക് വേണ്ടത് നോർമൽ മീൽസിനകത്ത് നമ്മുടെ ഫിഷ് ഐറ്റംസ് നമുക്ക് ഈ കരിമീൻ പോലെ പൊള്ളിച്ചത് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടോ

അപ്പം ആ ഒരു ലെവലിൽ സാധാരണ മീൽസ് വിത്ത് ഈ മീൻ പൊള്ളിച്ചത് അങ്ങനെ ഉള്ളത് എടുത്താൽ മതി ലഞ്ചിന് കേട്ടോ കൂന്തൽ ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ ആ എന്നാൽ അത് ആയി അത് ആയിക്കോട്ടെ ശരി താങ്ക് യൂ